പിന്നെന്താ അതിന് ചോദിച്ചോളൂ നടക്കും നടക്കും അതിനെക്കൊണ്ട് അത് നമ്മൾ ലോൺ കൊണ്ട് വരുന്ന സമയത്ത് ആധാർ കാർഡ് വേണം ആ ആധാർ കാർഡ് ആരാ പണയം വെക്കാൻ വരുന്നത് വെച്ചാൽ അവരുടെ ആധാറ് വേണം അല്ല നിങ്ങളിൽ നിങ്ങളുടെ നിങ്ങൾ ഈ സ്വർണ്ണം മോഷ്ടിച്ചുകൊണ്ട് വന്നതാണോ എങ്ങനെ ആണെന്നോ നാളെ ഇനി പോലീസ് വന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അറിയും നിങ്ങൾ പണയം വക്കുമ്പോൾ നിങ്ങളുടെ ഈ പണയം ഗോൾഡ് പണയം വക്കാൻ ആളുടെ പ്രൂഫ് വേണ്ടെ ഇപ്പം ഗോൾഡ് പണയം വയ്ക്കാൻ വരുന്ന ആളുടെ ഒരു പ്രൂഫ് വേണ്ടെ ഒരാൾണ്ടെ അല്ല ആധാർ കാർഡ് കൊടുക്കാൻ പാടില്ല എന്നില്ല ഓഡ്റ് ഇല്ല സെൻട്രൽ ഗവൺമെൻ്റു പറയുന്നത് ആധാർകാർഡിൻ്റെ നാലക്കങ്ങൾ നമ്പര് മറച്ച് കൊടുക്കണം എന്ന് നമുക്ക് അങ്ങനെ തന്നാൽ മതി നിങ്ങളുടെ പ്രൂഫ് തന്നാൽ മതി അല്ലാതെ അത് അത് ഒരു അക്ഷയയിൽ തന്നെ അല്ല അത് അത് അത് ഒരു അക്ഷയ സെൻട്രിൽ പറഞ്ഞാൽ മതി അവരോട് അവരോട് പറഞ്ഞാൽ മതി ഞങ്ങളുടെ ഇത് ഇങ്ങനെ ആധാറിൽ നാലക്കം മറച്ച് തരണം എന്ന് പറഞ്ഞാൽ അവർ മറച്ച് തരും

ലോണ് ഗോൾഡ് കൊണ്ടുവന്നാൽ ലോൺ തരാം നിങ്ങളുടെ സ്വർണ്ണത്തിൻ്റെ എഴുപത് ശതമാനം ലോൺ തരും ഇന്നുതന്നെ അപ്പള് തന്നെ കിട്ടും ഓൾറെഡി പലിശ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ മൂന്ന് മൂന്ന് മൂന്ന് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ പലിശയടയ്ക്കണം നൂറ് രൂപയ്ക്ക് ഒര് രൂപയെ പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യം ഇലല്ലോ ഞാൻ ബേങ്കിൻ്റെ നിങ്ങൾക്ക് വേറെ എവിടെ പോയാലും ഇത്രയും പൈസ കിട്ടത്തില്ല നിങ്ങൾ എവിടെ കൊണ്ടുപോയി ഏത് ആ സ്റ്റേറ്റ് ബേങ്കിൽ കൊണ്ട് ചെന്നാൽ അവർ അറുപത് ശതമാനം പിന്നെ അവരും എടുക്കും പതിനാല് ശതമാനം പലിശ നമുക്ക് നൂറ് രൂപയ്ക്ക് തൊണ്ണൂറ് പൈസ തന്നാൽ മതി നൂറ് രൂപയ്ക്ക് തൊണ്ണൂറ് പൈസ ഇത് പുതിയ പുതിയ സ്കീം ആണ് ഒരു പവന് ഒരു പവന് പത്ത് പത്തര വിലയിൽ അതിൻ്റെ എഴുപത് ശതമാനം നിങ്ങൾക്ക് ലോൺ നല്കാൻ ചെയ്തുതരും അത് പറ്റില്ല അത് പറ്റില്ല തരുന്നതിന് നമ്മൾ ജീവനക്കാരനല്ലേ അല്ല ഞങ്ങൾക്കേ ഞങ്ങൾ കൂലിക്കാണ് നമ്മൾ കൂലിക്കാണ് പിന്നെ ജോലിക്കാരല്ലേ മുതലാളിമാരല്ലല്ലോ അല്ല നമ്മൾ അതാ പറഞ്ഞത് അതാ പറഞ്ഞത് അറുപത്തഞ്ച് ശതമാനമാ ഞങ്ങളിൽനിന്നും കൊടുത്തുകൊണ്ടിരുന്നത് എഴുപത് ശതമാനമാ ഇപ്പോൾ കൊടുക്കുന്നത് നിങ്ങൾക്കും മൂന്ന് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ പലിശയടയ്ക്കണം അല്ലാ ആറ് ആറാം മാസത്തിൽ പുതുക്കുകയും ചെയ്യണം ആറ് മാസം കൂടുമ്പോൾ ഇത് പുതുക്കി വയ്ക്കുകയും വേണം ആറ് മാസം കൂടുമ്പോൾ പുതുക്കി വെക്കണം ഓക്കെ ഓക്കെ ഓക്കെ